ഞാൻ സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുള്ളത് ബിഗ് ഡേ മീഡിയ ഇവൻറ്സ് അവർ മോഡൽ ഫോട്ടോഗ്രഫി ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അതുപോലെ തന്നെ ശ്രീജിത്ത് രാധാകൃഷ്ണൻ അദ്ദേഹവും വെഡ്ഡിങ്ങും വെഡിങ്ങ് ഫോട്ടോഗ്രഫി ഉണ്ട് മോഡൽ ഫോട്ടോഗ്രഫി ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ സുഭാഷ് നായർ ഉണ്ട് അദ്ദേഹം വൈൽഡ്ലൈഫ് ഫോട്ടോഗ്രാഫർ ആണ് പിന്നെ അതുപോലെ തന്നെ ഡേയ്സി ഡേവിഡ് ഒരു ഫീമെയിൽ ഫോട്ടോഗ്രാഫർ ആണ് കൂടുതലായിട്ടും മോഡൽ ഫോട്ടോഗ്രഫി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വെഡ്ഡിങ്ങ് ഫോട്ടോഗ്രഫി ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ വിവേക് കൃഷ്ണ അദ്ദേഹവും വെഡിങ്ങ് ഫോട്ടോഗ്രഫിയും അതേപോലെ തന്നെ വീഡിയോഗ്രാഫറും കൂടിയാണ് പിന്ന അപർണ്ണ പുരുഷോത്തമൻ ഒരു ഫീമെയിൽ ഫോട്ടോഗ്രാഫർ ആണ് വൈൽഡ്ലൈഫ് ഫോട്ടോഗ്രാഫർ ആണ് അതേപോലെ തന്നെ സീമാ സുരേഷും അവരും വൈൽഡ്ലൈഫ് ഫോട്ടോഗ്രാഫർ ആണ് അതേപോലെ തന്നെ ട്രയാങ്കിൾ ഫോട്ടോഗ്രാഫി അവർ ഒരു വീഡിയോഗ്രാഫർ ആണ് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഉത്സവങ്ങളുടേയും ഓരോ ഫംഗ്ഷൻ ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെല്ലാം പോയി ക്യാപ്ച്ചർ ചെയ്ത് കൂടുതലും ആൾക്കാരിലേക്ക് എത്തിക്കുക ഒക്കെ ചെയ്യും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ് അതേപോലെ തന്നെ മാക്ക് മോഡ് ഫോട്ടോഗ്രാഫി അവരും കൂടുതലും മോഡലും വെഡ്ഡിങ്ങും ഒക്കെയാണ് ചെയ്യുന്നത് പിനെ അനുലാൽ ഫോട്ടോ ഫോട്ടോഗ്രാഫർ ഉണ്ട് ഒരു സെലിബ്രിറ്റി ഫാഷൻ ഫോട്ടോഗ്രാഫർ ആണ് അതേപോലെ തന്നെ ഫോട്ടോ ഡാഡി വെഡ്ഡിങ്ങ് പോർട്ടൽസ് അവരും വെഡ്ഡിങ്ങ് ഫോട്ടോഗ്രാഫി ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത് പിന്ന ദേശാസ് ലെൻസ് അതൊരു ഫീമെയിൽ ഫോട്ടോഗ്രാഫർ ആണ് കൂടുതലായിട്ടും അവർ ചെയ്യുന്നത് നേച്ചർ ഫോട്ടോഗ്രാഫി ആണ് പിന്നെ എൻ എ നസീർ അദ്ദേഹം വൈൽഡ്ലൈഫ് ഫോട്ടോഗ്രാഫർ ആണ് എറണാകുളത്താണ് ആളുടെ സ്ഥലം ആൾ അറിയപ്പെടുന്നത് തന്നെ അമ്പാസിഡർ ഓഫ് കേരള ഫൊറസ്റ്റ് എന്നാണ് പിന്നെ അത് അതുപോലെ തന്നെ എനിക്ക് പേഴ്സണൽ ആയിട്ടറിയുന്ന എൻ്റെ ബ്രദർ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് മെമ്മറീസ് അവരും വെഡിങ്ങ് മോഡൽ അങ്ങനത്തെ എല്ലാ എല്ലാ ടൈപ്പും ഉണ്ട് പിന്നെ വെഡ് മോമെൻറ് ഉണ്ട് മോഡൽ ഉണ്ട് വെഡ്ഡിങ്ങ് ഉണ്ട് അല്ലാത്ത എല്ലാ ഫംഗ്ഷൻസും നോക്കുന്നു പിന്നെ ബ്ലാക്ക് പെപ്പേഴ്സ് അവരും അത്യാവശ്യം വെഡ്ഡിങ്ങ് ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത് പിന്നെ സ്റ്റോറീസ് ബൈ വിനീത് ആളും വീഡിയോഗ്രാഫർ ആണ് അതേപോലെ തന്നെ അത്യാവശ്യം വെഡ്ഡിങ്ങ് വർക്ക് എടുക്കുന്ന ഇതാണ് അതേപോലെ തന്നെ റെഡ് ഡോട്ട് ഞാൻ കൂടുതലായിട്ടും വൈൽഡ്ലൈഫ് ഫോട്ടോഗ്രഫി ആണ് ഇഷ്ടപ്പെടുന്നത് ഞാൻ കൂടുതലായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളതും വൈൽഡ്ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനെയാണ്